ഹലോ കേക്ക് അല്ലേ ആ എൻറെ അനിയത്തിയുടെ പിറന്നാൾ ആയിരുന്നു വരുന്ന മറ്റന്നാൾ അപ്പം എനിക്കൊരു കേക്ക് വേണമായിരുന്നു നമുക്ക് ഏതൊക്കെ കേക്ക് ആണ് ഉള്ളത് അല്ല അവിടെ ഉള്ള കേക്കുകൾ ഏതൊക്കെ ആയിരുന്നു നമുക്ക് ഏകദേശം എത്ര റേറ്റ് ആണ് വരുന്നത് ഇതിനെല്ലാം അതായത് ഇപ്പം ഒരു അര കിലോയ്ക്ക് ഒക്കെ നമുക്ക് വാഞ്ചൊ കേക്ക് എടുക്കുവാണെങ്കിൽ അങ്ങനെ ഓരോ കേക്കുകൾക്ക് എത്ര ഏകദേശം റേറ്റ് ആയിരിക്കും വരുന്നത്

ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ച് കിലോയുടെ കേക്ക് ആണ് അപ്പം അഞ്ച് കിലോയുടെ ഓരു വാഞ്ചൊ കേക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു വാഞ്ചൊ കേക്ക് നമുക്ക് ആ സമയത്തേക്ക് ചെയ്ത് തരാൻ പറ്റുവോ ആ അപ്പം അഞ്ച് അഞ്ച് കിലോ ആണ് നമുക്ക് വേണ്ടത് ആ അപ്പം നമുക്ക് ആണെങ്കിൽ മറ്റന്നാളത്തേക്ക് ഒരു നാല് മണി ആ ഒരു ഒരു സമയത്തോടുകൂടിയാണ് വേണ്ടത് നാല് നാലരയാവുമ്പം നാല് നാലര ആവുമ്പം നമുക്ക് ഇത് വീട്ടിൽ എത്തിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ടല്ലേ ആ എൻ്റെ സ്ഥലം കൊറവലങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കൊറവലങ്ങാട് ജങ്ഷനവിടെ എത്തിയാൽ മതി ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം ഈ നമ്പറിലേക്ക് പേയ്മെൻറിൻറെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം അതായത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേക്കാം അതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ സൗകര്യം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ കേക്ക് ആ കേക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആണെങ്കിൽ തലയിൽ കുട്ടിക്ക് തലയിൽ വയ്ക്കാനുള്ള ഒരു തൊപ്പി കാൻഡിൽസ് അതുപോലെ തന്നെ പാർട്ടി പോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ

അതിലൂടെ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി അതായത് നമുക്ക് ഒരു ഹാൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹാളിൽ ഏകദേശം ഒരു ഇരുനൂറ് പേർ വരുന്ന രീതിക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ഒരു നാ ആ ടൈം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലും നാലരയ്ക്കാണ് നമ്മൾ ഏകദേശം ഈ പരിപാടി ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇരുനൂറ് പേർ ഉണ്ട് അപ്പം ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് തന്ന് കട്ട് ചെയ്ത് തരാനും കൂടെയുള്ള വല്ല അറേഞ്ച്മെൻറ് ചെയ്യാൻ പറ്റുമോ ഓക്കെ അപ്പം ഞാൻ നിങ്ങളെ അന്നത്തെ ദിവസം ഒന്ന് രാവിലെയും കോണ്ടാക്റ്റ് ചെയ്തേക്കാം ഇത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പായാലും കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പം എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യണമല്ലോ ആ ടൈം ആകുമ്പോൾ എന്തായാലും അപ്പം ഞാൻ അന്നേരത്തേക്ക് ഈ ഈ നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറും നമ്മുടെ ഗൂഗിൾ പേയുടെ എല്ലാത്തിൻറെയും നമ്പർ ഇത് തന്നെയാണോ ആ അതായത് ഇപ്പം എനിക്ക് ആണെങ്കിൽ ഇൻ കേസ് ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇനിയൊരു കേക്ക് ഓർഡർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇതുവായിട്ട് ബന്ധപ്പെട്ട് വല്ല ആപ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഇപ്പം കേക്കുകൾ നമുക്ക് വേറെ പുതിയ പുതിയ കേക്കുകൾ ചെക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓഫറിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിലോ അങ്ങനെ ഒക്കെ നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ആപ്പ് ഉണ്ടോ നിങ്ങൾക്ക് അതായത് സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു ബേക്കറുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പം ഞാൻ ആണെങ്കിൽ മറ്റന്നാൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തോളാം രാവിലെ ഞാനൊന്ന് വിളിച്ചോളാം അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചോളാം